ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വന്തമായൊരു കൾച്ചറൽ അല്ലെങ്കിൽ സാംസ്ക്കാരിക സ്വത്ത്വമില്ല ആ വ്യക്തി ജീവിക്കുന്ന അല്ലേ വളരുന്ന സമൂഹം ഏറ്റോം പ്രധാനപ്പെട്ട കുട്ടീടെ ഫാമിലി ഇമ്മീഡിയറ്റ് നൈബേസ് പിന്നെ കുട്ടി ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ പിന്നെ ആ കുട്ടി പഠിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂള് എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ റിലീജിയനുമായിട്ടു ബന്ധപ്പെട്ട റിലീജിയസ് പ്രാക്ടീസസ് ഞാനൊരു കാതോലിക്കയാണ് അത് കൊണ്ട് എൻ്റെ സഹ സഹ പ്രാക്ടീസസ് റിലീജിയസ് റിലീജിയസായിട്ടുള്ള അതായത് മതപരമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ തത്വ ചിന്തകൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഒരു പരിധി വരെ എൻ്റെ സാംസ്ക്കാരിക സ്വത്ത്വം രൂപപ്പെടുത്തിയത് ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ രാജ്യത്തിൻ്റെ വലിയ അറിയപ്പെടുന്ന സാംസ്ക്കാരിക നേതാക്കന്മാർ പ്രാദേശികമായ സാംസ്ക്കാരിക നേതാക്കൻ നേതാക്കന്മാരുടെ സാന്നിധ്യം അവിടെ അവരുടെ ജീവചരിത്രങ്ങളും അവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സംഹിതയുമൊക്കെ ഒരു വ്യക്തിയെ ആ ആളിൻ്റെ സാംസ്കാരികത രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സഹായിക്കും അങ്ങനെ തന്നെയാണ് എനിക്കും പറയാൻ പറ്റുന്നത് എൻ്റെ ജീവിത സാഹചര്യവും ഇല്ലെങ്കിൽ ഞാൻ ഇത്രോം പ്രായത്തിനിടയിൽ പല സാഹചര്യങ്ങളിലും പല പ്രദേശങ്ങളിൽ മൂവ് ചെയ്യുകയും പല തരം ജോലികൾ പ്രധാന സാന്ത്വന സാമൂഹ്യ പ്രവത്തക എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് ഉള്ള അനുഭവത്തിൽ നിന്ന് അവിടെയെല്ലാം ഒത്തിരി സാംസ്കാരികമായിട്ട് വളരാനായിട്ടും പഠിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ആകത്തുകയാണാല്ലോ നമ്മുടെ സാംസ്കാരിക സ്വത്ത്വം എന്ന് പറയുന്നത്